എനിക്ക് ചിത്രം വരച്ചതിലേറ്റവും കൂടുതൽ അഭിമാനം തോന്നിയിട്ടുള്ളത് എൻ്റെ ഉപ്പേൻ്റെയും ഉമ്മേൻ്റെയും വെഡിങ്ങ് ആനിവേഴ്സറിക്ക് ഞാനവരുടെ ഒരു ചിതം വരച്ചിട്ടുണ്ടായിരുന്നു ഞാനവരുടെ ഒരു രൂപം തന്നെ ഞാൻ വരക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഏറ്റവും ഭംഗിയുള്ള രീതിക്കു തന്നെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നപ്പോഴാണ് ഞാനത് വരച്ചത് ആ ഒരു സമയത്ത് എനിക്ക് പറ്റാവുന്ന ഏറ്റവും മാക്സിമം ഏറ്റവും എനിക്ക് എത്ര പറ്റുമോ ഞാനത് വരച്ചത് എൻറ്റെയെല്ലാം ഒരു പ്രയത്നം അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു അപ്പം അത് ചെയ്തപ്പം എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നിയതെന്നാണ് കാരണം എൻ്റെ ഉള്ളിലെ കലാകാരിയെ ഞാൻ തിരിച്ചറിഞ്ഞത് അന്നത്തെ ആ ഒരു ദിവസത്തിലാണ് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയതും ആ ഒരു ചിത്രത്തോട് തന്നെയാണ് ഞാനതാർക്കും കൊടുത്തിട്ടില്ല ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് എനിക്കതിനോടുള്ള ആ ഒരു ഇഷ്ടവും ബഹുമാനവും കൊണ്ട് തന്നെയാണ് പിന്നെ എനിക്കെൻ്റെ കഴിവുകളെ ബാക്കിയുള്ളവർ പ്രചോദിപ്പിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണാൻ ഭംഗിയുണ്ട് നമ്മൾ ഒരു ചിത്രം വരച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ട് എന്നു പറയാൻ അധികം പേരുണ്ടായില്ലെങ്കിലും നമുക്ക് സപ്പോർട്ട് അത്രയും കിട്ടില്ലയെന്നുള്ളതാണ് സത്യം ഇപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് വരച്ച് തരുമോ ചിത്രം ചിത്രം വരച്ച് തരുമോയെന്നു ചോദിക്കും അവരുടെ മുഖം വരച്ചു തരുമോയെന്ന് ചോദിക്കും പക്ഷേ എന്താ അവരതിൻ്റെ പുറകിലുള്ള ആ ഒരു എഫേർട്ടും ഒരു കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ചിത്രം വരക്കുന്ന കലാകൻ കലാകാരന്മാരും കലാകാരികളും ഉണ്ട് പക്ഷേ അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രചോദനം കുറഞ്ഞതു കൊണ്ട് തന്നെ ആയിരിക്കണം അധികം ആളുകളും പുറത്തേക്ക് വരാത്തതും അധികം ആളുകളും അതിലേക്ക് സമയം കണ്ടെത്താത്തതും അവരുടെ ആ ഒരു പാഷനിലേക്ക് തിരിയാത്തതും അതുകൊണ്ട് തന്നെ ആയിരിക്കണം വീട്ടുകാരിൽ നിന്നായാലും നമ്മുടെ കൂട്ടുകാരിൽ നിന്നായാലും കിട്ടുന്ന ആ ഒരു പ്രചോദനം ആ ഒരു നമുക്കുള്ള ആ ഒരു സ്ട്രെങ്ങ്ത്തും കുറയുമ്പോഴാണ് നമ്മളേതൊരാർട്ടിസ്റ്റും തളർന്നു പോകുന്നത് അവിടെയാണ് പിന്നെ ഈ നമ്മുടെ കലാലയങ്ങളിലും അതേപോലെ സ്കൂളുകളിലും ഇതിനുള്ള സപ്പോർട്ടെന്നു പറയുമ്പോൾ റിലേറ്റബിളിലി കുറവാണ് നമുക്ക് പഠനത്തോടാണ് ഏറ്റവും കൂടുതൽ അവർ സാമീപ്യം കാണിക്കുന്നത് അതിനോടാണെങ്കിലും നമ്മുടെ ഈ കലാവാസന സർഗ്ഗാത്മകത ബോധം പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്